ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട് തറയെല്ലാം തറയോടൊക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ടൈൽസൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് എങ്കിലും ഞാൻ രണ്ടും മൂന്നും ദിവസം കൂടുമ്പം തുടച്ച് ഇടും പിള്ളാരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കൂടെ രണ്ട് ദിവസം കൂടാൻ പറ്റത്തില്ല ഒരു ഒന്നരാടം ദിവസമൊക്കെ തുടച്ചിടും ഇവരൊക്കെ ഇപ്പം ആരും ഇല്ലാത്തത് കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കുടുമ്പോഴൊക്കെ ഞാൻ തുടയ്ക്കാറുള്ളു ആദ്യമേ എല്ലാം തൂത്തു വാരി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ തറ തുടയ്ക്കാറുള്ളു ഞങ്ങളുടെ നേരത്തെ പണ്ടത്തെ പണ്ടൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ ചാണകം മെഴുകിയ ഇതായിരുന്നു പക്ഷേ അതിനകത്താണ് നമ്മൾക്ക് ജീവിക്കാനും സുഖം നല്ലത് ആരും ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നമ്മൾക്ക് ഇതുവരേയും ഉണ്ടായിട്ടൊന്നുമില്ല തറ ജീവിക്കാൻ തറയിൽ കൂടെ നടക്കാനാണെങ്കിലും നമുക്ക് കാല് വേദനയൊന്നും നമുക്ക് ഇതുവരെ അനുഭവം അന്നൊന്നും ഒന്നും ഇത് എൻ്റെ വല്യപ്പനും വല്യമ്മയുമൊക്കെ അന്ന് അവർക്കൊക്കെ പ്രായമായിട്ട് പോലും അവർക്കൊന്നും അതിനെപ്പറ്റി ഒരു ഇതുമില്ലായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് തറ ടൈൽസൊക്കെ ഇട്ടപ്പോഴത്തേക്കും നമുക്ക് ചെരുപ്പില്ലാതെ ഒരു തരത്തിലും തറയിൽ കൂടെ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് പക്ഷേ അന്നത്തെ പണ്ടത്തെ വീടും ഓലപ്പുരയും അങ്ങനെയുള്ള വീടുകളായിരുന്നു നമ്മൾക്ക് സൗകര്യം അതുമല്ല നമ്മൾക്ക് ക്ഷീണം അസുഖമൊന്നും ഉണ്ടാകാറൊന്നുമില്ല ഞങ്ങളുടെയൊക്കെ അമ്മ അപ്പൻ അച്ഛൻ്റെ വീടുകളൊക്കെ ഓലപ്പുരയൊക്കെ ആണ് പക്ഷേ അന്നൊന്നും അവർക്കൊന്നും ഇതു പോലെ ഒരു അസുഖം വരുന്നില്ല നമുക്ക് ചാണാകം മെഴുകിയ തറയായിരുന്നാൽ നമുക്ക് എന്ത് എങ്ങനെ വേണമെങ്കിലും കിടക്കാം ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾക്ക് തറയിലൊന്നും കിടക്കനോ ടൈൽസക്കേട്ടിപ്പത്തേൻ തറേ കെടക്കാനോ ഭയങ്കര തണുപ്പും എല്ലാ ആയത് കൊണ്ട് നമുക്ക് ഭയങ്കര ഇതൊണ്ട് പക്ഷെ അന്നത്തെ പണ്ടത്തെ വീടക്കേയിരുന്നു എനിക്കുവിഷ്ടം ഇപ്പം പിന്നെ ഉണ്ട് നമുക്ക് തൂത്ത് അവിടെ ഇത് തൂത്ത് തുടച്ചിടുമെല്ലാം എപ്പോഴും ചെയ്യണ്ടേ അങ്ങനെയുള്ള ഒരു ഇതൊക്കെയുണ്ട് എന്നാലും ഞാൻ പരമാവധി തൂത്ത് തുടച്ച് തന്നെയാണ് എല്ലാ വീടും പരിസരവും എല്ലാം തന്നെ തുടച്ചിടും കുഴപ്പമില്ല പക്ഷേ എന്നാലും നമുക്ക് ചാണാൻ മെഴുകിയ തയുടെ അത്രയും എന്തായാലും ഇപ്പോഴത്തെ ടൈൽസിട്ട തറയൊന്നും ഒക്കത്തൊന്നുമില്ല എനിക്കാണങ്കിൽ ഇഷ്ടം അത് തന്നെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരും തന്നെ തറ എല്ലാ ഞങ്ങളുടെ പൂർവീകർ എല്ലാവരും തന്നെ ഇങ്ങനെ അന്നൊക്കെ തറയോടൊന്നും പതിപ്പിക്കാത്ത വീടുകളായിരു നമുക്ക് എത്ര വേണമെങ്കിലും താമസം എത്ര ചെരിപ്പില്ലാതെ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് നടന്നാൽ നമ്മുടെ കാലിന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ഇപ്പം നമ്മൾക്ക് ഒരു നിമിഷം പോലും ചെരുപ്പില്ലാതെ നമ്മുടെ തറയിൽ കൂടെ നമുക്ക് നടക്കാനോ കിടക്കാനോ ഒന്നും പറ്റത്തില്ല തറ നമുക്ക് പഴയ വീട് തന്നെയാണ് എപ്പോഴും നല്ലത് തറയിൽ ചാണകം മെഴുകിയ തറലൊക്കെയാണ് നമുക്ക് ഒരു തുണിയൊക്കെ ഇട്ട് കിടന്നാലും നമുക്ക് ദേഹത്ത് വേദനയോ ഒന്നും ഇതുവരെ അനുഭവം അന്നൊന്നും ഇതില്ലായിരുന്നു പക്ഷേ ഇപ്പോളത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒന്ന് തറയിൽ കിടക്കാനോ ഉറങ്ങാനൊന്നും പറ്റത്തില്ല എനിക്കെപ്പഴും ഇഷ്ടം തറ ചാണകം മെഴുകിയ തറ തന്നെയാണ് പിന്നെ മനുഷ്യൻ്റെ സാഹചര്യം അനുസരിച്ച് ഓരോത്തരുടെ ഇത് മാറി മാറി വരുന്നത് കൊണ്ട് നമ്മൾ ഇപ്പം അത് ഇത് ചെയ്തു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നത് എങ്കിലും പരമാവധി ഞാൻ ഒന്നരാടം ദിവസം തന്നെ അപ്പം തൂത്ത് തുടച്ച് പക്ഷേ നമ്മൾ ചാണകം മെഴുകിയ പെരായാണങ്കിൽ ഒരു മാസത്തേക്ക് രണ്ട് മാസം മൂന്ന് മാസായിട്ട് ഇപ്പം ചെയ്തില്ലേ കുഴപ്പമില്ല പക്ഷേ ഇപ്പം നമുക്ക് ഇങ്ങനത്തെ തറയൊക്കെ ആയത്കൊണ്ട് എന്നും തൂത്ത് തുടച്ചിട്ടില്ലെങ്കിലും അതിന് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഞാൻ എന്നും ഒന്നരാടം ദിവസം തറ തുടയ്ക്കാറുണ്ട് അതാണ് ഇപ്പം ചെയ്തു പോകുന്നത്